ഹലോ ഇത് മഹീന്ദ്ര ട്രാവൽ ഏജൻസി അല്ലെ ഞാനൊരു രണ്ടു ദിവസത്തിനു മുൻപ് ഒരു വണ്ടി ബുക്ക് ചെയ്തായിരുന്നു അപ്പം അതിൻ്റെ ഡ്രൈവറിൻ്റെ നമ്പർ എനിക്കന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി തന്നിരുന്നു ഇന്നലെ ഇൻ രണ്ടു ദിവസം മുൻപേ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഊട്ടി പോകാനാണ് വണ്ടി അറേഞ്ച് ചെയ്തേയെന്ന് അപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് വരാമെന്നു തന്നെ സം രണ്ടുദിവസം മുൻപേ വിളിച്ച് വരാമെന്നു തന്നെ സമ്മതിച്ചതാണ് ഇന്നു രാവിലെ വിളിച്ചപ്പം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പം എന്തു കാര്യം കൊണ്ടാണ് ആ ഡ്രൈവർ ഫോൺ എടുക്കാത്തതെന്ന് അറിയില്ല നിങ്ങൾ ആ ഡ്രൈവറെ എങ്ങനെയെങ്കിലും ഒന്നു കോണ്ടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മറുപടി എനി എന്നോട് പറഞ്ഞു തരണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡ്രൈവറിനെ എമർജൻസിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അറേഞ്ച് ചെയ്തു തരണം അപ്പോൾ ഇന്നലെവരെ വരാമെന്നു പറഞ്ഞ ആളായിരുന്നു അപ്പെന്താണ് കാര്യമെന്നു വെച്ചാൽ അന്വേഷിച്ചിട്ട് എൻറ്റടുത്തു മറുപടി പറയണം